ഇന്നത്തേക്കാല മലയാള ഭാഷ സംസാരിക്കുവാൻ ഇന്ന് സർക്കാർ തലത്തിൽ നമ്മൾ എല്ലാം ഇങ്ക്ളീഷിലേക്ക് നമ്മുടെ മക്കളെ ഇങ്ക്ളീഷ് മാത്രം പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മൾ ഒരു നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ബിസ്നസ്സ്കാരെല്ലാം ഇങ്ക്ളീഷിലാണ് എഴുതി വച്ചിരിക്കുന്നത് മലയാള ഭാഷയിലൊരു ബോട്ട് പോലും നമുക്ക് വായിച്ചൊരു ഒരു സ്ഥാപനത്തിൽ കയറിപ്പോകാൻ പറ്റുന്നില്ല ഒരു ഷോപ്പിങ്ങിന് നമക്ക് പോവാൻ പറ്റുന്നില്ല നമ്മൾ മേടിക്കുന്ന എല്ലാ സാധനവും ഇങ്ക്ളീഷ് മാത്രമാണ് എഴുതിയിരിക്കുന്നത് അത് നമ്മുടെ നമ്മുടെ സംസാരഭാഷയായ മാതൃഭാഷയെ നമ്മൾ തള്ളിക്കൊണ്ട് ഇങ്ക്ളീഷ് ഭാഷ മാത്രം സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഈ നാട്ടിൻ്റെ വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരേ വിദ്യാഭ്യാസമല്ലല്ലോ ഇങ്ക്ളീഷ് മീഡിയത്തിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇങ്ക്ളീഷ് മാത്രം പഠിക്കുക എന്ന് പറയുന്നത് ലോകത്തിലെല്ലാം ഇങ്ക്ളീഷ് ഭാഷ ശരിയാണെങ്കിലും നമ്മുടെ മലയാള ഭാഷയെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മലയാള ഭാഷയെ നമുക്ക് ജീവിപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള മലയാളങ്ങൾ വേണം നമ്മൾ മരുന്ന് മേടിക്കുമ്പോഴും നമ്മൾ ഹോപ്പി ചെയ്യുമ്പോഴും നമ്മൾ തുണി മേടിക്കുമ്പോഴും നമ്മൾ ബോർഡ് വായിക്കുമ്പോഴും ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പം ബസ്സിൻ്റെ ബോർഡ് ഇങ്ക്ളീഷിൽ വെച്ചിരിക്കുന്നു മലയാള ഭാഷയല്ലേ നമ്മൾക്ക് ഇവിടെ വെയ്ക്കേണ്ടത് നമ്മളതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽനിന്ന് എഴുതി വന്നന്ന് മലയാളത്തിൽ വേണ്ടേ ചെയ്യാൻ അതല്ല അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മലയാളത്തെ മരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളൊരു ഓപ്പീസിൽച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വെക്കാൻ പറ്റുന്നില്ല നമ്മളൊരു ബാങ്കളിൽ ചെന്നാൽ നമുക്ക് മലയാളത്തിലില്ല നമ്മളൊരു ചെക്ക് പൂരിപ്പിച്ച് കൊടുക്കണമെങ്കിൽ മലയാളമില്ല നമ്മൾ നമ്മൾ അതുപോലെത്തന്നെ എന്ത് കാര്യത്തിന് പോയാലും എല്ലാം ഇങ്ക്ളീഷിലാണ് മലയാളത്തിലാരും സംസാരിക്കുന്നില്ല അതുകൊണ്ട് മലയാള ഭാഷ ഇവിടെ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സംസാരിക്കുമ്പോഴ് അടിസ്ഥാനപരമായിട്ട് മലയാളം എന്ന് പറയുന്ന ഒരു ആറാം ക്ളാസ്സ് വരെയെങ്കിലും അക്ഷരങ്ങൾ മക്കളെ പഠിപ്പിച്ച് ആറാം ക്ളാസ്സ് വരെയെങ്കിലും മലയാളം പഠിപ്പിച്ച് പഠിപ്പിച്ച് വന്നിട്ട് അവന് അക്ഷരങ്ങൾ പഠിപ്പിക്കണം അടിസ്ഥാനപരമായിട്ട് ഇന്ന് ഡീ പ്പി യീ പ്പി സമ്പ്രദായം വന്നതോടുകൂടി നമ്മൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നില്ല പിള്ളേർക്ക് മലയാളം വായിക്കാൻ അറിയാമ്പാടില്ല എഴുത്തുകൾ കണ്ടമാനമാണ് എല്ലാം ഫോണിലല്ല വേണ്ടത് അവൻ്റെ കയ്യക്ഷരംതൊട്ട് സംസാരഭാഷ തൊട്ട് അമ്മേയെന്ന് വിളിക്കുന്ന ആ തൊട്ട് അവന് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്